ശേഖരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശേഖരിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മളുടെ ഓർമ്മകളായിട്ടും പിന്നെ ചരിത്ര ഓർമ്മകളായിട്ടും അങ്ങനെ പ്രത്യേക തരം കാര്യങ്ങൾ ആണ് നമ്മൾ ശേഖരിച്ച് വെയ്ക്കുന്നത് സ്റ്റാമ്പുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശേഖരിക്കുന്ന ഓരോ സ്റ്റാമ്പും ഓരോ കാലത്തെ ചരിത്രങ്ങൾ വിളിച്ച് പറയുന്ന സ്റ്റാമ്പുകളായിരിക്കും അതിൽ വളരെ വ്യക്തമായിട്ടുള്ള ആ ഒരു ചരിത്രത്തിൻ്റെ ശേഖരങ്ങൾ നല്ല രീതിയ്ക്ക് സ്ഫടികമായിട്ട് അതിൽ വിശദീകരിച്ചിട്ടുണ്ടാവും ആ ഒരു രീതിയ്ക്ക് ഓരോ ശേഖരങ്ങളിലോട്ട് ഓരോ പുതിയ പുതിയ സാധനങ്ങൾ ചേർക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സാധനം നമ്മുടെ ആ ഒരു ശേഖരത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ ആ ഭാഗമാകാൻ ആകുന്ന സാധനങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഓരോന്ന് ചേർക്കുമ്പോഴും ആ ചേർക്കുന്ന സാധനത്തിൻ്റെ പുതുതായ പ്രത്യേകതകൾ അത് ഇതിലോട്ട് ചേർക്കുമ്പോൾ നമ്മുടെ ശേഖരത്തെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു മുതലായ കാര്യങ്ങൾ ആണ് എങ്ങനെ ചേർക്കണം എന്ത് ചേർക്കണം എന്ന് തീരുമാനിക്കുന്നത് പ്രത്യേക മാനദണ്ഡങ്ങൾ വച്ച് ചേർക്കുന്ന ഇതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഒരു നിശ്ചിത നിലവാരം ഉണ്ടായിരിക്കണം നമ്മുടെ ശേഖരങ്ങളിലോട്ട് ഒരു പുതിയൊരു സാധനം ചേർക്കുമ്പോൾ അതിന് നിശ്ചിത നിലവാരം ഉണ്ടായിരിക്കണം പിന്നെ ഉദാഹരണം ഒരു സ്റ്റാമ്പ് കളക്ഷനെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റാമ്പ് പുതിയതായിട്ട് ചേർക്കുന്ന സ്റ്റാമ്പ് വളരെ പ്രത്യേകത ഉള്ളതായിരിക്കണം ഒരു പ്രധാനപ്പെട്ടൊരു ചരിത്ര സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സ്റ്റാമ്പായിരിക്കണം ഇപ്പോൾ മറ്റ് സ്റ്റാമ്പ് അല്ലെങ്കിൽ നാണയങ്ങളാണെങ്കിലും നമ്മുടെ കയ്യിൽ ഉള്ള അതേ നാണയങ്ങൾ അല്ലെങ്കിൽ അതേ സീരീസിലുള്ള നാണയങ്ങൾ എടുക്കുന്നതിലല്ല പ്രത്യേകത ഒരു പുതിയ ഒരു ആശയം അല്ലെങ്കിൽ പുതിയൊരു ചരിത്രം സൂചിപ്പിക്കുന്ന ഒരു നാണയം അധികവും നാണയ ശേഖരങ്ങളിലോട്ട് ചേർക്കുന്ന നാണയങ്ങളിൽ നിന്ന് ഇപ്പോൾ നിലവിലുള്ള നാണയത്തെക്കാളും നമ്മൾ ഉപയോഗിച്ച് അത് മാറി വന്ന ഇപ്പോൾ നിലവിൽ ഉപയോഗത്തിലില്ലാത്ത പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളെ കാണിക്കുന്ന തരത്തിലുള്ള നാണയങ്ങൾ അങ്ങനെയുള്ള നാണയങ്ങൾ ചേർത്ത് വെയ്ക്കുന്നത് എപ്പോഴും ഒരു മുതൽ കൂട്ടായിരിക്കും അങ്ങനെ ആ ഒരു പ്രത്യേകത തീരുമാനിച്ചിട്ടാണ് നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ ചേർക്കുന്നത്